നമസ്കാരം സാറെ ഞാൻ അജുവിൻ്റെ അച്ഛൻ ആണ് ആ അജു കൃഷ്ണയുടെയാണ് സാറെ കുഴപ്പം ഇല്ല സാറെ പഠിക്കുന്നൊക്കെ ഉണ്ട് ആ കളി ആണ് ഇപ്പോൾ ഇടയ്ക്ക് മൊത്തം വൈകുന്നേരം വന്ന് കഴിഞ്ഞാൽ ഗ്രൗൻഡ് പോക്കാണ് പരിപാടി ആൾക്ക് ഫുട്ബോൾ ആണ് ഭയങ്കര ക്രേസ് ആ മാത്സ് ആണ് മാത്സിൽ നല്ല മാർക്ക് കുറവ് ആണ് ഞാൻ നോക്കി ആയിരുന്നു പിന്നെ ട്യൂഷന് വിടാൻ ഒരു പ്ലാനിൽ ആണ് ഞാൻ നിൽക്കുന്നത് മാത്സിൽ മാത്രം ആയിട്ടെങ്കിലും വീട്ടിൽ അമ്മ അമ്മ പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ പഠിക്കില്ല അതാണ് കളി വിചാരം ആണ് ഫുട്ബോൾ ആണ് മെയിൻ പിന്നെ എന്താണ് സാർ കളിക്കാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒക്കെ ഞാൻ ആണെങ്കിൽ നൈറ്റ് ആണ് വർക്ക് ഡ്യൂട്ടി ഒക്കെ അപ്പോൾ ആൾ ഗുരുവായൂർ അതാണ് വൈകുന്നേരം വരുന്ന അതിലേക്ക് കളി ആയി ഏ അമ്മ വീട്ടിൽ ഉണ്ടാവും ആ ഞാൻ ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് വർക്കിന് പോവാണ് അപ്പോൾ ഞാൻ നൈറ്റും ഷിഫ്റ്റും ആയിട്ട് ഇങ്ങനെ പോവുമ്പോൾ ആളിനെ നോക്കാൻ അതാ ആ അങ്ങനെ ഒരു ഇതാണ് ആ അമ്മ അമ്മ ജോലിക്ക് പോവുന്നില്ല പക്ഷേ അമ്മ പഠിക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ ആൾ പഠിക്കാൻ ഇരിക്കുന്നൊന്നും ഇല്ലേ ആ പിന്നെ കളി പിള്ളേരായിട്ട് ഇങ്ങനെ പോവും വീടിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് പിള്ളേർ ഉണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം അവരുടെ ഒപ്പം പോയിരിക്കും പിന്നെ ആള് എത്തുമ്പോൾ ഒരു ഏഴ് മണി ഒക്കെ ആവും

പിന്നെ അവൻ ഒര് മിലിട്ടറിയുടെ ഒരു ബി പി എസ് പറഞ്ഞിട്ട് ഒരു അക്കാദമിയുടെ ഒക്കെ കാര്യം ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചേരണമെന്ന് ഒക്കെ പറഞ്ഞിട്ട് ട്രെയിനിംഗ് സെക്ഷനിൽ കേട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ സ്കൂളിൽനിന്ന് കുറച്ച് പിള്ളേർ ഉണ്ടെന്ന് ഒക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അത് എന്ത് സാർക്ക് അറിയുവോ ആ അങ്ങനെ എന്തോ മിലിട്ടറിയുടെ ക്യാമ്പോ ട്രെയിനിംഗോ അങ്ങനെ എന്തോ ഉണ്ട് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപ് സ്കൂളിൽനിന്ന് ബാക്കി പിള്ളേർ ആ ഞാൻ അതാണ് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് പറഞ്ഞാൽ കേൾക്കണ്ടേ ആൾ എത്ര പറഞ്ഞാലും ആ ആ രണ്ട് ദിവസം മുൻപ് പോയിട്ട് കളിച്ചിട്ട് കാൽ ഒക്കെ ഒന്ന് ഉളുക്കി പിന്നെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് ഇപ്പോൾ എല്ലാം ശരി ആയതേ ഉള്ളൂ പിന്നെയും ഗ്രൌൻഡിൽ പോണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചീത്ത ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതാണ് ഇനി വൈകുന്നേരം ആ നമ്മള അവിടെത്തന്നെ സെൻറ്ററും ഉണ്ടായി പുതിയത് ആയിട്ട് ഒരു തുടങ്ങിയിട്ട് ഉണ്ട് തോന്നുന്നു ആ ആ വീട്ടിൻ്റെ അടുത്തുതന്നെ ആണ് ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ആ മലയാളം ഒക്കെ ആൾ നല്ല അടിപൊളി മലയാളം ഒക്കെ നന്നായി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഹ്മ് അതിന് വേണ്ടി ഒരു ട്യൂഷന് വിടാമെന്ന് ആ ആ ഒന്ന് ഓക്കെ ഞാൻ ഇതിൽ എഴുതിയാൽ പോരേ ഇതിൽ എഴുതിയാൽ പോരേ ആ ശരി സാറെ ഇടയ്ക്ക് ഒന്ന് വിളിച്ചാൽ മതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സാറെ

എ പ ആ ശരി ഓക്കെ ശരി സാർ